ഹലോ ട്രാവൽ ഏജൻസി അല്ലേ എൻ്റെ പേര് അനു ഞാനാണെങ്കിലൊരു ബുക്ക് ഒരു വിൻഡോ സീറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടം പക്ഷെ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് സൈഡ് സീറ്റാണ് അപ്പം നിങ്ങളുടെ ബുക്കിംഗ് ഒന്ന് മാറ്റി തരുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കാണെങ്കിൽ സൈഡ് സീറ്റിനോടായിരുന്നു കൂടുതലിഷ്ടം അപ്പോൾ എൻ്റെ ആ സീറ്റൊന്ന് മാറ്റി എനിക്ക് എങ്ങനെയെങ്കിലും വിൻഡോ സീറ്റ് തരാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ വിൻഡോ സീറ്റിലേക്ക് മാറാനായിട്ട് നിങ്ങളുടെ ട്രാവൽ ഏജൻസിയെ എങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെപ്പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളെയൊന്ന് സഹായിക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയെങ്കിലും എന്ത് കാണിച്ചിട്ടാണെങ്കിലും എനിക്ക് സൈഡ് സീറ്റ് വേണ്ടായിരുന്നു വിൻഡോ സീറ്റിലേക്ക് മാറ്റാനായിട്ട് ഇനി എമൗണ്ട് അതിന് കൂടുതൽ വേണോ അതോ എമൗണ്ട് ഇപ്പം അടച്ച എമൗണ്ട് തന്നെ മതിയാവുമോ ഞാൻ അതിന് വേണ്ടിയിട്ട് റീപേ ചെയ്യണോ എന്താ വേണ്ടത് നിങ്ങളുടെ ഏജൻസി എനിക്കൊന്ന് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സജഷൻ പറഞ്ഞ് തരാമോ എനിക്ക് സൈഡ് സീറ്റിലിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല വിൻഡോ സൈഡാണെങ്കിൽ കാറ്റ് കൊള്ളാൻ കാറ്റ് കൊള്ളാനെന്നല്ല സൈഡ് സീറ്റിനെക്കാളുപരി എനിക്ക് വിൻഡോ സീറ്റിൻ്റെ സൈഡിലിരിക്കാനായിട്ടായിരുന്നു ഇഷ്ടം അതുകൊണ്ടായിരുന്നു അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബുക്കിംഗ് ഒന്ന് മാറ്റി തരുമോ സൈഡ് സീറ്റിൽ നിന്നും എങ്ങനെയെങ്കിലും എനിക്ക് വിൻഡോ സീറ്റിലേക്ക് മാറാനായിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാണ് എമൗണ്ട് കൂടുതലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എമൗണ്ട് അടയ്ക്കാനായിട്ട് തയ്യാറാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സൈഡ് സീറ്റിൽ നിന്ന് മാറ്റി വിൻഡോ സീറ്റിലേക്ക് മാറാനായിട്ടുള്ള മാർഗം നിങ്ങളായിട്ട് തരുമോ പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് സൈഡ് സീറ്റ് പറ്റാത്തത് കൊണ്ടാണേ ഇത്രയും നാളും ട്രാവല് ചെയ്തത് വിൻഡോ സീറ്റ് ആയിരുന്നു അപ്പം അത് തന്നെ കൂടുതലും വേണമെന്നുള്ള ഒരിത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത് ഇതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് തരാനായിട്ടാണെങ്കിലും ഞാൻ തയ്യാറാണ് എനിക്ക് എങ്ങനെയെങ്കിലും വിൻഡോ സീറ്റ് തരണം എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും വിൻഡോ സീറ്റ് തരാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യണേ നിങ്ങളുടെ ഏജൻസി അല്ലെങ്കിൽ ഞാൻ ഏജൻസിയിലെ വേറെ മറ്റ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ടോ എങ്ങനെയാണെന്നൊന്ന് അറിയിക്കുമോ വിൻഡോ സീറ്റ് തന്നെ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്തെങ്കിലും ഒരു വഴി എനിക്ക് വഴിയുണ്ടോ സൈഡ് സീറ്റിൽ നിന്ന് മാറി വിൻഡോ സീറ്റിലേക്ക് വരാനായിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് വിൻഡോ സീറ്റിൽനിന്ന് വിൻഡോ സീറ്റിലേക്ക് തന്നെ മാറണമെന്നായിരുന്നു അതുകൊണ്ടാണ് ബുദ്ധിമുട്ടായോണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നരുത് എൻ്റെ ആവശ്യം ആയോണ്ടാണ് കേട്ടോ വേറെയൊന്നും തെറ്റിദ്ധരിക്കരുത്